ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം വളരെ മികച്ചതാണ് എന്നിരുന്നാൽ പോലും അവിടെ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് സംവിധാനങ്ങളും ഇന്നും ഇല്ല ഇപ്പോൾ വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെയും മറ്റു ജെ രാജ്യങ്ങളെയും ഒക്കെ പോയി അവിടെ ചികിത്സ ഒക്കെ ചികിത്സ അവിടെ നിന്ന് ചികിത്സ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ചില ചില ഇപ്പോൾ നമുക്ക് ക്യാൻസർ അതുപോലെ തലച്ചോറിലുള്ള ചില രോഗങ്ങൾ അതൊക്കെ ഓപ്പറേഷൻ ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിന്നും ഇന്ത്യയിൽ നില കൊള്ളുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തായിക്കോട്ടെ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും നില നിൽക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് അടിയന്തിരമായി എന്തെങ്കിലും ഒരു ഇപ്പോൾ ബ്ലഡ് ബാങ്കുകളൊക്കെ ഒരുപാടുണ്ട് എങ്കിൽ പോലും ചില ചില സമയങ്ങളിൽ അവിടെ നമുക്ക് ആവശ്യമായ ബ്ലഡ് അവൈലബിളല്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ സർക്കാർ ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ അവിടെ തന്നെ പോയാൽ മരുന്നുകൾ പുറത്ത് നിന്ന് വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് പോലെ ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടറുകളുടെ അഭാവക്കെ ഹോസ്പിറ്റലുകളിൽ കൂടി വരുന്നുണ്ട് പിന്നെ അതൊക്കെ നമുക്കൊരു രോഗികൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുപോലെത്തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലെ പിന്നെ നല്ല നല്ല ഡോക്ടറുകളും ഇപ്പം കൂടുതൽ ഡോക്ടർമാരുടെ അഭാവമാണ് കാണുന്നത് ഇപ്പോൾ സർക്കാർ ഹാ ഹോസ്പിറ്റലുകളിൽ പോയാൽ പോലും നല്ല ഒരു നല്ലൊരു എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ ഡോക്ടേഴ്സ് വളരെ കുറവാണ് ഇപ്പോൾ കാണുന്നത് ചെറിയ പഠിച്ചുവരുന്ന ഡോക്ടർസിനെ ഒക്കെയാണ് കാണുന്നത്